ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വനിത നർത്തകർ നേ എന്താ ഒരു നൃത്തം ഹോബിയായിട്ട് പിന്തുടരാൻ നമുക്ക് ഒരു എന്താ പറയാ ഒരു പ്രശ്നവുമില്ല അതെന്ന് പറഞ്ഞാൽ നൃത്തംന്നു പറയുമ്പോൾ നല്ല കാര്യങ്ങളാണ് അതിനെ ഹോബിയായിട്ട് കൂടെകൊണ്ട് നടക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല കാരണം എന്താ പറയാ വനിത നർത്തകർ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വനിത നർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അവരുടെ ഓരോ നർത്തത്തിനും ഓരോ നൃത്തത്തിന് അവർ പോകുമ്പോഴും അവർക്കതിനെ പറ്റിയ കോസ്റ്റ്യൂം കിട്ടുന്നില്ല അതുപോലെതന്നെ എന്താ പറയാ കോസ്റ്റും കിട്ടുന്നില്ല അതുപോലെത്തന്നെ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെ എന്താ ഒരു കോസ്റ്റ്യൂമും വാ രെൻ്റിന് വാടകയ്ക്ക് എടുക്കാൻ അവർക്ക് കിട്ടുന്നില്ല ഒന്ന് അതാണ് ഒന്നാമത്തെ വെല്ലുവിളിന്ന് പറയുന്നത് മാത്രമല്ല എന്താ പറയാ അമ്പലത്തിലും ഇവിടെയൊക്കെ പോകുമ്പോൾ ട്രവലിങ്ങിനൊക്കെ പോയിട്ടിങ്ങനെ ന നൃത്തം ചെയ്യാൻ വേണ്ടി പോകുന്നതാണല്ലോ അതിനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഇതൊരു ഹോബിയായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് നമുക്കൊരു തെറ്റും ഇല്ലാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യംന്നുപറയുന്നത് അതുപോലെ തന്നെ വനിത നർത്തകർ നേരിടുന്ന കുറെ വെല്ല് വെല്ലുവിളികൾ നമുക്കുണ്ട് അതിൽ ഒന്നാമത്തേത് കോസ്റ്റ്യൂമിൻ്റെ പ്രശ്നമാണ് ഓരോ നമുക്കെന്താ പറയുക നമ്മുടെ ആ നൃത്തത്തിന് പറ്റിയ ഒരു കോസ്റ്റ്യൂം നമുക്ക് കിട്ടുന്നില്ല അതാണിപ്പോൾ ഒന്നാമത്തെ പ്രശ്നംന്നുള്ളത് ബാക്കി എല്ലാംകൊണ്ടും ഒരു ഹോബിയായി കൊണ്ട് നടക്കാൻ ഒരു പ്രശ്നവുമില്ല